ശരീരഭാരം കൂട്ടാനായിട്ടു ശ്രമിക്കുന്നവർക്ക് നാട്ടുവൈദ്യങ്ങളെന്ന് പറഞ്ഞാല് നമുക്കിവിടെ ആയൂർവേദമാണ് കുടുതലായിട്ടുള്ളത് ആയൂർവേദത്തിലെ പല തരത്തിലുള്ള ലേഹ്യങ്ങളും അതുപോലെ അരിഷ്ടങ്ങളുമൊക്കെ കിട്ടാം കിട്ടും നമുക്ക് ഊ നാട്ടുവൈദ്യശാലകളില് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയൂർവേദ ഷോപ്പുകളിലൊക്കെ പോയാല് ശരീരഭാരം കൂട്ടാനായിട്ട് ഉതകുന്ന അരിഷ്ടങ്ങളും അതുപോലെ ലേഹ്യങ്ങളുമൊക്കെ കിട്ടും പ്രത്യേകിച്ച് എന്നാ പ്രസവം പിന്നെ കഴിഞ്ഞു ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അത് നാൽകാറുണ്ട് കാരണം അവർക്ക് നല്ല ശരീരം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്കു നല്ല രീതിയില് മൂലയൂട്ടാനുമൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അങ്ങനെ കൊടുത്ത് കൊടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം വളരെ കുറഞ്ഞ കുട്ടികൾക്കു ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യത്തിനും ശരീരപുഷ്ടിക്കും ഒക്കെ വേണ്ടിയിട്ടു നാട്ടുവൈദ്യശാലകളിൽ നിന്നും ആയുർവേദ ഷോപ്പുകളിൽനിന്നുമൊക്കെ ഈ വിധത്തിലുള്ള മരുന്നുകളൊക്കെ ലഭിക്കാറുണ്ട് അതുപോലേതന്നെ നമ്മുടെ സാധാ നമ്മുടെ നിത്യോപയോഗസാധനങ്ങളായ ഏത്തയ്ക്ക മുട്ട പാല് അങ്ങനെയുള്ള ഭക്ഷണപദാർഥങ്ങളിലൂടെയും നമുക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും